മെയിനായിട്ടും നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഫോണിൻ്റെ ആപ്പ് കാരണം അതിനാണല്ലൊ നമ്മൾ മെയിനായിട്ടും ഫോൺ കണ്ടു പിടിച്ചിരുന്നത് പിന്നെയല്ലേ നമ്മുടെ ഈ ആവശ്യമായ ആപ്പുകളൊക്കെ വന്നത് ആരെയെങ്കിലും ഒരത്യാവശ്യത്തിന് വിളിക്കാനാണെങ്കിൽ നമുക്ക് ഫോണെടുത്ത് നേരെ വിളിച്ചാൽ മതി അല്ലാതെ പഴയപോലെ ഓടിപ്പോയി ലെറ്ററയച്ച് പിന്നെ രണ്ടാഴ്ച്ച വെയ്റ്റ് ചെയ്ത് അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല പിന്നെ എന്നു പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയെ ഇത് വാട്ട്സപ്പ് വാട്ട്സപ്പില്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല വാട്ട്സപ്പിൽക്കൂടിയാണെങ്കിൽ നമുക്കൊരു മെസേജ് ഇട്ടാൽ മതി പഴയപോലെ ഈമെയിൽ അയക്കുകയോ ലെറ്റർ അയക്കുകയോ എഴുത്തെഴുതുകയോ ഒന്നും വേണ്ട നല്ല സുഖമായിട്ട് വാട്സപ്പിൽ വിളിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും ഇത് ചെയ്യാം വാട്സപ്പ് നമ്മൾ ഡെയ്ലി യൂസ് ചെയ്യുന്നൊരു ഘടകമാണ് പിന്നെ ഇൻസ്റ്റാഗ്രാം ഇപ്പോഴത്തെ എല്ലാ യുവ യുവാക്കൾക്ക് യുവാക്കൾക്കുമുള്ള ഒരു മെയിനായിട്ടുമുള്ളൊരു ആപ്പാണ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത യുവാക്കൾ വളരെ കുറവാണ് കാരണം ഇൻസ്റ്റാഗ്രാമാണ് ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്ക് വിളിക്കുകയും സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്യാം അതിനോടൊപ്പം തന്നെ നമുക്ക് റീൽസ് മെയിനായിട്ട് നമ്മുടെ റീൽസ് റീൽസ് നമ്മൾ റീൽസ് കണ്ടങ്ങ് കിടന്നുറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതും കണ്ടങ്ങൊരു ദിവസം മുഴുവനാണെങ്കിലുമങ്ങ് കിടക്കാം കാരണം അങ്ങ് നല്ലൊരു എൻ്റർടെയ്ന്മെൻ്റ് പല രീതിയിലുമുള്ള എൻ്റർടെയ്ൻമെൻ്റായിട്ടുള്ള റീൽസാണ് അവിടെ മെയിനായിട്ടും വരുന്നത് കാരണം റീൽസും പോസ്റ്റും നമുക്ക് നമ്മുടെ ഫോട്ടോയെടുത്ത് പോസ്റ്റ് ചെയ്ത് ചെയ്യുകയും ചെയ്യാം കണ്ടു കിടക്കാമെന്നു പറഞ്ഞാൽ മെയിനായിട്ടും ഇപ്പോഴത്തെ യുവാക്കളുടെ ഹരമാണ് റീൽസ് റീൽസെടുക്കാനും അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനും അതിനകത്ത് ആഗ്രഹമുള്ളവരാണ് റീൽസ് റീൽസെടുക്കുന്നവർ ഇത് ഈ ഈ മൂന്ന് ആപ്പാണ് നമ്മുടെ ഡെയ്ലി ലൈഫിൽ മെയിനായിട്ടുള്ളത് പിന്നെ വരുന്നത് ക്യാമറ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കാനിഷ്ടമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ക്യാമറ യൂസ് ചെയ്യുന്നത് അല്ലാതെയും നമുക്ക് വേണ്ട അപ്പോഴത്തെ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ക്യാപ്ച്ചർ ചെയ്യാനും അപ്പോഴത്തെ അല്ലെങ്കിൽ ഒരാളെ കളിയാക്കാൻ ഫോട്ടോ എടുക്കാനും എല്ലാം നമ്മൾ ഈ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് ക്യാമറയിൽ അതു കാരണം നമുക്ക് പെട്ടന്ന് ഫോണിൽത്തന്നെ ഇങ്ങെടുത്തങ്ങ് കയ്യിൽ സൂക്ഷിക്കാം പണ്ടത്തെ കാലത്തെപ്പോലെ നമ്മളെല്ലാവരേയും നിർത്തി ഒരു ഒരു വലിയൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം പല ടൈപ്പായുള്ള ക്യാൻ്റീഡ് ഈസ്ത്തെറ്റിക്ക് അങ്ങനെ പലത് അത് ഇത് അങ്ങനെ പലതും വന്നു ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്യാമറ കൊണ്ടുള്ള ഉപയോഗവും ഇഷ്ടംപോലെ തുടങ്ങി അപ്പോൾ അതുപോലെ ഉള്ളപ്പം ഫീൽഡും കൂടി പിന്നേയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉള്ളത് അതുപോലെ ചാറ്റ് ചെയ്യുന്ന ടെലെഗ്രാം ടെലഗ്രാമിലൂടെ ആണല്ലോ ഇപ്പം എല്ലാം സിനിമകളെല്ലാവരും ഈ കാശില്ലാത്തവരൊക്കെ സിനിമകൾ ഡൗൺലോഡ് ചെയ്യുകയും ഇതു ചെയ്യുകയും ചെയ്യുന്നത് ടെലഗ്രാമൊക്കെ അത്യാവശ്യം ഡെയ്ലി യൂസിനും സിനിമ കണ്ടു കാണുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് കാരണം ടെലഗ്രാമിലൂടെയാണ് എല്ലാ ഇറങ്ങുന്ന സിനിമകളും വരികയും അത് പല സൈസിൽ പല രീതിയിലുള്ള സാധനങ്ങൾ വരികയും ചെയ്യുന്നത് പിന്നേയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സിനിമ കാണുന്ന ഓ റ്റീ റ്റി പ്ലാറ്റ്ഫോംസ് ഒരു പത്തോ ഇരുന്നൂറോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാധാരണ ഓ റ്റീ റ്റി പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഡെയ്ലി സിനിമ കാണാം ഇന്ന സമയത്ത് ഇതിനുള്ളിൽ കാശ് കൊടുത്ത് അതും അത്യാവശ്യം ഡെയ്ലി യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ മെയിനായിട്ടും നമ്മള് ഡെയ്ലി യൂസ് ചെയ്യുന്നതേതാണ് ഫോൺ വാട്ട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഇത് മൂന്നുമാണ് മെയിനായിട്ടും എല്ലാവരും യൂസ് ചെയ്യുന്നത് വാട്ട്സപ്പ് ഇല്ലാതെ ഒരു ഇൻസ്റ്റാഗ്രാം ഒരുമാതിരി അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വാട്ട്സപ്പും ഫോണുമില്ലാതെ നമുക്കൊരു ദിവസം ജീവിക്കാനേ സാധിക്കുന്നില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആ അപ്പുകള് പിന്നെയും ആപ്പുകളാണ് നമ്മുടെ ചാറ്റ് ജീ പ്പീ റ്റി ഇപ്പോഴത്തെ പിള്ളാർക്ക് എന്തു ചോദിച്ചാലും എന്തു ചെയ്താലും ഉടനെ ഇതു ചെയ്യുന്ന കാര്യമാണ് ചാറ്റ് ജീ പ്പീ റ്റി എ ഐ നമ്മളെന്തു ചോദിച്ചാലും നമുക്ക് വേണ്ടത്ര ഇൻഫർമേഷൻ തന്ന് എവിടെനിന്നും എല്ലായിടത്തുനിന്നും കളക്റ്റ് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമിലെത്തിക്കുന്ന ഒരാളാണ് ചാറ്റ് ജീ പ്പീ റ്റി അങ്ങനെയുള്ള നിരവധിയായ ആപ്പുകൾ നമുക്ക് നമ്മുടെ ഡെയ്ലി ശൈലിയേ ഇതു ചെയ്ത്